സ്ത്രീകളുടെ ആർത്തവസമയം എന്നു വച്ചിട്ടുണ്ടെങ്കിൽ അവരേറ്റവും കൂടുതൽ ശുദ്ധിയായിരിക്കേണ്ട ഒരു സമയാണ് സ്ത്രീകളുടെ ആർത്തവ സമയം അതായത് നമ്മൾ ഇടുന്ന അടിവസ്ത്രങ്ങളും നമ്മൾ നമ്മുടെ ശരീരം എല്ലാം ആ സമയത്ത് വൃത്തിയായിരിക്കണം ഈ അതായത് ഈ സമയത്താണ് കൂടുതൽ സ്ത്രീകൾ പ്രത്യേകിച്ച് ചട്ടങ്ങളോ അങ്ങനെ ഒന്നും പാലിക്കേണ്ട ആവിശ്യമില്ല കാരണം അവർക്ക് അത് ശരീരം അത്രയും ടയേഡായിട്ടിരിക്കുന്ന ഒരു സമയമാണ് ഈ പണ്ടത്തെ കാലത്തൊക്കെ സ്ത്രീകളെ ആ സമയത്ത് തൊടാൻ പാടില്ല സ്ത്രീകൾ ഭക്ഷണം കഴിക്കുന്നിടത്ത് അതായത് എന്തെങ്കിലുമൊരു ഭക്ഷണം കൊണ്ടുക്കൊടുക്കും ഭക്ഷണം കഴിക്കാൻ അടുക്കളയിൽ കയറാൻ പാടില്ല അവർ ഒരു റൂമിൽ ഇങ്ങനെ അടച്ചിരിക്കണം അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ കാലത്തൊക്കെ അത് വളരെ കൂടുതലായിട്ട് മാറി കാരണം ഇപ്പോഴത്തെ സ്ത്രീകൾ അതൊന്നും ഉൾക്കൊള്ളാനുള്ള ഒരു ഇതില്ല ഉൾക്കൊള്ളാൻ നിൽക്കില്ല അതാണ് മെയിൻ പിന്നെ ശുചിത്വം ആയിരിക്കുക അതാണ് മെയിൻ ശുചിത്വം ശുചിത്വം ഉണ്ടെങ്കിലേ ആരോഗ്യം നമുക്ക് നിലനിർത്താൻ പറ്റുള്ളൂ ആ സമയത്ത് സ്ത്രീകൾ ഏറ്റവും കൂടുതൽ ശുചിത്വത്തിൽ ഇരിക്കുക